മുപ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആറ് അഞ്ച രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി പത്തൊന്പത് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി പതിനാല്